ഒരു ഗാനത്തിനോട് താല്പര്യം ഉണ്ടെന്നു പറയുമ്പോഴും ഒരു ഗായിക എന്നുള്ള നിലയിൽ സംസാരിക്കാൻ ഞാനാളല്ല കാരണം എൻ്റെ കേവലം ഹോബികളിൽ പെടുന്ന ഒന്നു മാത്രമാണ് പാട്ട് അതു ഞാൻ ഒഴിവ് സമയങ്ങളിൽ വെറുതെ എനിക്ക് പാട്ടു പാടുന്നതിനേക്കാൾ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതിൽ വളരെയധികം ഇൻട്രസ്റ്റുള്ളൊരാളാണ് അതുകൊണ്ടുതന്നെ ഇപ്പോഴുള്ളതായാലും മുന്നെയുള്ള പാട്ടുകളായാലും ഇപ്പോൾ വരുന്ന പാട്ടുകളായാലും കേവലം നമ്മുടെ ഈ ഒരാഗ്ര എൻ്റെ ഈ ഒരാഗ്രഹത്തെ സാട്ടിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് അതിൻ്റെ മധുരമായ ശബ്ദമാണെങ്കിൽ പോലും അതിൻ്റെ താളം ആണെങ്കിൽ പോലും അതിൻ്റെ വരികളിലെ അർത്ഥം ആണെങ്കിൽ പോലും വളരെയധികം ഒരു പാട്ടിനെ മൊത്തത്തിൽ മൗൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇമ്പോർട്ടൻറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായികമാരും ഗായകന്മാരും ഒക്കെ ഇതിനായിട്ട് ഇടുന്ന എഫേർട്ടും ഞാൻ മനസ്സിലാക്കിക്കൊള്ളുന്നു ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും എന്നു പറയുമ്പോൾ എനിക്ക് ലക്ഷ്യത്തിനേക്കാൾ ആഗ്രഹം എന്നുള്ളൊരു സംഭവത്തിനെ പറ്റിയാണിവിടെ പറയാനായിട്ട് താൽപര്യം കാരണം പാട്ട് എന്നു പറയുന്നത് എപ്പോഴും ഒരു മനുഷ്യന് അയാളുടെ സ്ട്രസ്സ് റിലീവ് റിലീവറായിട്ടൊക്കെ ആക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് അപ്പോൾ പാട്ട് അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ പുറത്തേക്കു വരണമെന്നുള്ളതാണ് ഇപ്പം പുതിയ ടെക്നോളജീസ് കാരണം ഒത്തിരി അധികം സാധ്യതകൾ ഈയൊരു പാട്ട് എന്നുള്ളൊരു മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ ആസ്വാദകരിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് ആ ഒരു ടാസ്കിരിക്കുന്നത് അപ്പം ഇതിനെ ഇത്രത്തോളം എത്രത്തോളം എഫക്ടീവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം എഫക്റ്റ് ആകാനായിട്ടു ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നു പറയുന്നത് അപ്പം ഈ മേഖലയിൽ കഴിവുള്ളവരിയൊരു ഏരിയയിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് വർക്ക് ചെയ്ത് ഇതിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം